ഞങ്ങളുടെ ഗ്രാമത്തിലെ സ്ത്രീകളെന്ന് പറയാനായിട്ട് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഗ്രാമത്തിൽ ഇപ്പോൾ പഴയത് പോലെയുള്ള എല്ലാവരും സ്ത്രീകൾ ഒത്തുകൂടിയിട്ട് മുളക് ചതക്കുന്ന ആ ഒരു രീതി ഒന്നും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നിലനിൽക്കുന്നില്ല കാരണം ഡെവലപ്മെൻറ് വന്നതോടുകൂടി ആരും തന്നെ അതിനൊന്നും വേണ്ടി അവരുടെ സമയം മെനക്കെടുത്താനായിട്ട് ഒരുക്കവും അല്ല അതുകൊണ്ട് തന്നെ മിക്സിയിലാണ് എല്ലാവരും എളുപ്പത്തിന് വേണ്ടി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കാരണം ഈ ഒരു ഏ ഇപ്പം ആർക്കും വേണ്ടി ആരുടെ വീട്ടിൽ പോകാനോ ജോലിത്തിരക്കുകൾ കാരണം ഒന്നിനും ഒന്നും സാഹചര്യം ഇല്ല അതുകൊണ്ട് തന്നെ അവർ മുളകുപൊടി അങ്ങനെയുള്ള എന്ത് കാര്യങ്ങളായിരുന്നാലും പൊടിക്കുന്ന വീട്ടിലും മിക്സീൽ എളുപ്പമായിട്ട് പൊടിക്കുക അല്ലെങ്കിൽ അത് കടയിൽ എവിടെയെങ്കിലും കൊടുത്ത് പൊടിപ്പിച്ച് വെക്കാനായിട്ട് പറയും അങ്ങനെ എന്തെങ്കിലും ഒക്കെയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്